വയനാട് ജില്ലയിൽ ബസ്സ് ഗതാഗതം പിന്നെ പറയുകയാണെങ്കിൽ വയനാട് ജില്ലയിൽ വിമാനത്താവളമോ ട്രെയിൻ അങ്ങനത്തെ സംവിധാങ്ങളൊന്നും വയനാട് ജില്ലയിലില്ല കാരണം വയനാട് ജില്ല പണ്ടത്തെ കാലങ്ങളിൽ നമുക്ക് ഒരു ഓട്ടോ ബസ്സിനു ബസ്സുപോലും കുറവായിരുന്നു കാരണം പണ്ടത്തെ കാലത്ത് നിന്നു പറഞ്ഞെങ്കിൽ ബസ്സ് നമ്മൾ നടന്ന് ദൂരങ്ങളിൽ പോകേണ്ട ഒരു അവസ്ഥയായിരുന്നു ഇപ്പോഴാണ് ഇഷ്ടംമാതിരി കെ എസ് ആർ ടി സി ബസ്സ് പ്രൈവറ്റ് ബസ്സ് ഓട്ടോ ടാക്സി പണ്ട് ടാക്സിയെന്നൊക്കെ പറഞ്ഞാൽ ദുർലഭമാണ് കാരണം നമ്മൾ കോഴിക്കോട് പോകണമെങ്കിൽ നമുക്ക് ഒരു കെ എസ് ആർ ടി സി ബസ്സ് ഉണ്ടാവും അതിൽ കയറി ഇരുന്ന് രാവിലെ പോയാൽ ഒരു നാലുമണിക്കൂറ് കഴിഞ്ഞ് ആയാൽ കോഴിക്കോട് എത്താം അത് തിരിച്ചു വരണമെങ്കിൽ ആ ബസ്സ് പിറ്റേ ദിവസമാണെങ്കിൽ വരുന്നത് ആ പിറ്റേ ദിവസം വരെ എവിടെയെങ്കിലും തങ്ങണം ഇപ്പോൾ അങ്ങനെയല്ല ഇപ്പോൾ നമുക്ക് ഒരു മണിക്കൂർ അര മണിക്കൂർ വിട്ട് എവിടെ വേണമെങ്കിലും കോഴിക്കോടോ കാസർഗോഡോ എവിടെ വേണമെങ്കിലും പോവാം അതുപോലെ വിമാനത്താവളം നമ്മളെ വയനാട് ജില്ലയിൽ ഇല്ല കാരണം വിമാനത്തിലേക്ക് പോകണമെങ്കിൽ നമുക്ക് ഒന്നുമില്ലെങ്കിൽ കോഴിക്കോട് പോകണം അല്ലെങ്കിൽ ട്രെയിൻ ആണെങ്കിൽ നമുക്ക് കോഴിക്കോട് കണ്ണൂർ ഇവിടെ എവിടെയെങ്കിലും പോകണം നമുക്ക് വയനാട് ജില്ലയിൽ എന്നു പറഞ്ഞാൽ ബസ്സ് തന്നെയാണ് കൂടുതലും ഉപകാരപ്രദമായ ഒരു വാഹനം